ബൈക്കിൽ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് ബൈക്കിൽ ബൈക്കിൽ പോകുമ്പോൾ നമ്മളെന്തൊക്കെ കരുതണം ഹെൽമറ്റ് സ്കാർഫ് പിന്നെ നമ്മൾ ഇൻഷുറൻസ് ലൈസൻസ് പിന്നെ എന്താണ് നമ്മുടെ പൊല്യൂഷൻ ആ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ കയ്യിൽ വെക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ക്യാഷ് കയ്യിൽ വെക്കാറുണ്ട് പിന്നെ നമുക്ക് ലോങ് ട്രിപ്പാകുന്നതുകൊണ്ടുതന്നെ വെള്ളം ഫുഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസൊക്കെ കയ്യിൽ വെക്കാറുണ്ട് കോട്ട് ഓവർ കോട്ട് കയ്യിൽ വെക്കാറുണ്ട് ദെൻ കൂളിങ് ഗ്ലാസ് നമ്മുടെ കണ്ണിലൊക്കെ വെയിലടിച്ച് ടാൻ പറ്റാതിരിക്കാൻ വേണ്ടി പൊടിയൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൂളിങ് ഗ്ലാസ് കയ്യിൽ വെക്കാറുണ്ട് ആ അത്യാവശ്യം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ എപ്പോഴും കയ്യിൽ വെച്ച് കൊണ്ടുപോകാറുള്ളത്